ഞങ്ങളുടെ അടുത്ത് കസ്തൂർബ എന്നും പറഞ്ഞ് ഒരു ടേയ്ലറിങ് സെൻ്റർ ഉണ്ട് അവിടെ ഇഷ്ടംപോലെ കുട്ടികൾ വരാറുണ്ട് അവിടെ സൂസമ്മ മേഡമാണ് പഠിപ്പിക്കുന്നത് ആദ്യമേ നമുക്ക് ഹെമ്മിങ്ങ് ആണ് ഹെമ്മിങ്ങ് കഴിഞ്ഞ് പിന്നെ ബട്ടൻസ്സ് ബട്ടൻ ഹോള് ഇതൊക്കെ പഠിപ്പിച്ചതിന് ശേഷമാണ് നമുക്ക് കത്രിക പിടിക്കാൻ തരും അത് കഴിഞ്ഞതിന് ശേഷം ചവിട്ട് ചവിട്ടിയതിന് ശേഷമാണ് നമുക്ക് അദ്യമേ തുണി ആദ്യമേ നന്നായിട്ട് തയ്ക്കാൻ നേരെ തയ്ക്കാനായിട്ടാണ് ഒരു തുണി തരുന്നത് അത് നമ്മൾ നന്നായിട്ട് തയ്ച്ചതിന് ശേഷം നമുക്ക് പിന്നെ ഓരോ ചെറിയ ചെറിയ ഐറ്റംസ്സ് നമുക്ക് പഠിപ്പിക്കും വെട്ടാനായിട്ട് പടിക്കും വെട്ട് കഴിഞ്ഞിട്ടാണ് നമുക്ക് തയ്യൽ തയ്പ്പിക്കുന്നത് അതിന് ശേഷം നമ്മൾ തയ്ച്ചതിന് ശേഷം വീട്ടിലേക്ക് നമുക്ക് കൊടുത്ത് കൊണ്ടുവരാം നമുക്ക് നന്നായിട്ട് തയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് ഇപ്പം പെറ്റി ക്കോട്ട് ആണെങ്കിൽ അത് നമുക്ക് വെട്ടിത്തന്ന് വിടും അത് കഴിഞ്ഞ് നമ്മൾ തയ്ച്ചുകൊണ്ട് വന്ന് കഴിഞ്ഞ് അവർ പിറ്റേന്ന് നമ്മൾ തന്നെ വെട്ടിത്തയ്ക്കണം പിന്നെ തയ്ച്ചതിന് ശേഷം നമുക്ക് പിന്നെ ഒരു ഒരു മോഡൽ വസ്ത്രങ്ങൾ ഫ്രോക്ക് ചുരിദാർ ചുരിദാർ ആണെങ്കിലും പല സൈസ് ഉണ്ട് അതൊക്കെ നമുക്ക് നമ്മുടെ മോഡൽ അനുസരിച്ച് നമ്മൾ പറയുമ്പം ടീച്ചറ് നമ്മളെ പഠിപ്പിക്കാറുണ്ട് ഓരോന്നിനും മൂന്ന് നാല് മോഡല് വെച്ചാണ് പഠിപ്പിക്കുന്നത് ഫ്രോക്ക് ഒക്കെ ആണെങ്കിലും പിന്നെ സ്റ്റിപ്പ് വെച്ചുള്ളതും ഒക്കെ ചെയ്യാറുണ്ട് പിന്നെ അതിനകത്ത് ചെറിയ പൂക്കളൊക്കെ ഫ്രോക്കിലൊക്കെ ചെയ്ത് തരും പിന്നെ നൈറ്റി ആണെങ്കിലും പല മോഡലുകളുണ്ട് ചുരിദാറ് ചുരിദാർൻ്റെ കൂടെത്തന്നെ പാൻ്റ് ലെഗിൻസ് അങ്ങനെയൊക്കെ നമുക്ക് പ്രത്യേകം പ്രത്യേകം അതിനൊക്കെ ഓരോന്ന് ചാർജ്ജും ഉണ്ട് നമുക്ക് നമ്മുടെ ഫാഷൻ പറയുന്നത് അനുസരിച്ച് ടീച്ചറ് വെട്ടിത്തരും അതിന് പ്രത്യേക ചാർജും ഉണ്ട് പിന്നെ ആൺപിള്ള കുട്ടികളുടെ ആണെങ്കിലും അതിനും ഷർട്ട് ഒക്കെ തയ്പ്പിക്കുന്നതിനുമൊക്കെ നമക്ക് നല്ല രീതിയിൽ പറഞ്ഞുതരികയും നമുക്ക് വീട്ടിൽ ആണെങ്കിലും ചെന്നിരുന്ന് തയ്ക്കാനായിട്ടുള്ള രീതിയിൽ റ്റീച്ചറ് നമ്മളെ സഹായിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്